ഹലോ ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത് ആണെ ആ പിന്നെ അതായത് തിരുനെല്ലിയിൽ നിന്ന് തിരുനെല്ലിയിൽ നിന്ന് വിളിക്കുന്നതാണ് അപ്പോൾ എനിക്ക് കോഴിക്കോട് പോകാൻ വേണ്ടിയായിരുന്നു ആ അടുത്ത അഴ്ച്ച അതെ അതെ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ അഴ്ച്ച പോയത് പോയ ക്യാബ് തന്നെ കിട്ടുവോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ആ അപ്പം അത് അവൈലബിൾ ആണോ എന്നൊന്ന് നോക്കുവോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഡേറ്റ് ഞാൻ പറഞ്ഞു തരാം പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ അതെ അപ്പം ആ ക്യാബ് തന്നെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു ഞാൻ എൻ്റെ അമ്മമ്മ ഒക്കെ ഉണ്ട് അപ്പോൾ അമ്മമ്മയ്ക്കൊക്കെ യാത്ര ചെയ്ത് പോകാൻ നല്ല സുഖമായിരുന്നു വണ്ടിയില് ആ അപ്പോൾ ആ ക്യാബ് തന്നെ കിട്ടുവാണെങ്കിൽ ഉപകാരമായിരുന്നു

അതൊന്ന് നോക്കിയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യുമോ അങ്ങനെ ആണെങ്കിൽ ഞാന് പിന്നെ പൈസ ഒക്കെ അടയ്ക്കാം ആ അത് അവൈലബിൾ ആണല്ലേ ആ അങ്ങനെയാണെങ്കില് അടുത്ത ഞായറാഴ്ച്ച കേട്ടോ ഞായറാഴ്ച്ച ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആ ഓക്കെ ഓക്കെ ലൊക്കേഷൻ ഞാൻ വാട്സ്ആപ്പ് ചെയ്യാം ഓക്കെ ഓക്കെ